ഞങ്ങളെ നാട്ടിൽ ജലസേജനം എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ഒരു കിണറുണ്ടാവും പിന്നെ ജലനിധി പിന്നെ ജപ്പാൻ വെള്ളം പദ്ധതിയെന്ന് പറഞ്ഞിട്ട് റോട്ടിലൂടെയൊക്കെ കീറിക്കൊണ്ട് പൈപ്പൊക്കെ ഇട്ട് പോയിക്കാണ് വള്ളം ഇതുവരെ വന്നിട്ടില്ല ഒരു പൈപ്പും വച്ചിക്ക്ണ് ചിലയിടത്തൊക്കെ നമുക്കൊന്നും അതും വച്ചിട്ടില്ല പിന്നെ ജലനിധിയാണെങ്കിൽ വേനൽ ലാസ്റ്റായാൽ ഒന്നരാടമോ രണ്ടുദിവസം കൂടുമ്പോഴോ ആഴ്ചയിൽ ഒരുദിവസമോ അങ്ങനെയൊക്കെ വരികയുള്ളൂ അതടുത്തുള്ള ആ കിണറിൻ്റെ അടുത്തുള്ള ആളുകളെ കിണറ്റിലൊക്കെ വെള്ളം കയ്യാണ് പറഞ്ഞ് അവിടെ പോയി കച്ചറയുണ്ടാക്കി ആൾക്കാരത് വിടാൻ സമ്മതിക്കില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരികയുള്ളൂ പിന്നെ എൻ്റെ പെരയിലാണെങ്കിൽ അവിടെയും ഇങ്ങനെത്തന്നെ അവിടെ ലൈൻ വെള്ളമൊക്കെയുണ്ട് അതും ഇപ്പോൾ അതേ മാതിരി പൈപ്പ് പൊട്ടിയാൽ ജന്മത്തിൽ ഗവണ്മെൻറ്റ് ആ വഴിക്ക് തിരിഞ്ഞുനോക്കില്ല അതങ്ങനേ അവിടെ കിടക്കും പോക്ണ് പിന്നെ വെള്ളം കിട്ടില്ല ഒരാഴ്ചയൊക്കെ വെള്ളം വരാതിരിക്കും അപ്പോൾ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം വരാതിരുന്നാൽ പിന്നെ വേനൽകാലത്ത് കൃഷിയുണ്ടാക്കുന്ന പരിപാടിയൊന്നും അതുകൊണ്ട് നമുക്കില്ല വേനൽകാലത്ത് കൃഷിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വെള്ളം വേണ്ടേ നമുക്ക് കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കാൻതന്നെ വെള്ളം കിട്ടുന്നില്ല പിന്നെയെങ്ങനെ കൃഷി ഉണ്ടാക്കൽ അപ്പോൾ ആ പരിപാടി ഒന്നും ഇല്ലതാനും പിന്നെ കൃഷി നല്ല വെള്ളമൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നെൽകൃഷി അതേ ഉണ്ടാക്കാൻ പറ്റുളളൂ പിന്നെ പയർ വെണ്ട വെള്ളരി ഇങ്ങനെയൊക്കെയുള്ള കൃഷിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ലോണം വെള്ളം വേണം അത് നമ്മളത്രക്ക് നനച്ച് ശുശ്രൂഷിച്ച് കൊണ്ട് നടന്നാൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുളളൂ